കാലം മാറിയപ്പോൾ കാലങ്ങളായിട്ടുള്ള കൃഷിരീതിയിൽ വലിയൊരു മാറ്റമാണ് കണ്ടു വരുന്നത് പാരമ്പര്യ രീതിയിലുള്ള കൃഷി രീതികളിന്ന് പാടെ മാറിയിരിക്കുന്നു പണ്ട് കാലങ്ങളിൽ മൃഗങ്ങളെ ഉപയോഗിച്ചാണ് കൃഷി ഉഴുതിരുന്നതെങ്കിൽ ഇന്നത് ട്രാക്ടർ അല്ലെങ്കിൽ മിഷ്നറി ഉപയോഗിച്ചുള്ള ഒരു രീതിയിലോട്ട് മാറിയിരിക്കുന്നു പണ്ട് പൂർണ്ണമായിട്ടും കാലിവളം അതുപോലത്തന്നെ ജൈവ വളങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്തിരുന്നത് ഇന്നത് മാറി രാസവളത്തിലേക്ക് മാറിയിരിക്കുന്നു പണ്ട് വേപ്പിലക്കഷായം അതുപോലതന്നെ ജൈവ രീതിയിലുള്ള കീടനാശിനികളാണ് ഉപയോഗിച്ചിരുന്നത് ഇന്നതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് കീടനാശിനികൾ ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത് ഇതെല്ലാം കാലങ്ങളായിട്ട് കൃഷി ചെയ്തുവരുന്ന രീതിയിൽ നിന്നും ഉള്ളൊരു മാറ്റമായിട്ടാണ് കണ്ടു വരുന്നത്